എനിക്ക് ഇഷ്ട എഴുത്തുകാരൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഒരിളം പ്രായത്തിൽ ഇത്രയേറെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് കവിത എഴുതുവാൻ മറ്റൊരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത തന്നെ അവിടുത്തെ അധ്യാപകൻ പഠിപ്പിക്കായിരുന്നു അപ്പോള് കവി ഇന്നതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് അധ്യാപകൻ പറയുമ്പോൾ ഈ കുട്ടി ആണ് ആ കവിത എഴുതിയതെന്ന് അധ്യാപകനറിയില്ല അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുന്നേറ്റുനിന്ന് അങ്ങനെയല്ല അതിന്റെ കവിത എഴുതിയ ആള് ഉദ്ദേശിക്കുന്നേന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ തർക്കം അപ്പോൾ പറഞ്ഞ് പിന്നീടാണ് മനസ്സിലായത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഈ കവിതയുടെ ഉപജ്ഞാതാവാണെന്ന് അങ്ങനെ അധ്യാപകൻ തൻ്റെ ശിഷ്യന് എഴുതിയ കവിത അതേ ക്ലാസിൽ പഠിപ്പിക്കുന്ന ഒരവസരം ചങ്ങമ്പുഴയുടെ കാലത്തുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ കവിതകളെല്ലാം നോക്കി കഴിഞ്ഞാൽ ആ അത് ചങ്ങമ്പുഴയെ പോലെ ചങ്ങമ്പുഴയ്ക്ക് ശേഷമോ ചങ്ങമ്പുഴയ്ക്കു മുമ്പോ ഒരാളിന് ഒരു കവിത എഴുതാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം ലളിത കോമള പദാവലികളെന്ന് തന്നെ പറയാം അങ്ങനെകൊണ്ട് ഇങ്ങനെ ഒഴുക്കാണ് അങ്ങേരുടെ ഈ ഒഴുക്കിനെ ഒരിക്കലും നിലയ്ക്കാത്ത ഒഴുക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലൂടെ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറ്റേതായ ചില പോരായ്മകളുണ്ടെന്ന് വിമർശന ലോകമങ്ങ് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാലം ഒന്നും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേർക്ക് പത്മഭൂഷണം പത്മവിഭൂഷണം എല്ലാം കിട്ടുന്ന കവികളെല്ലാം പിൻതള്ളി പോകുമായിരുന്നു പക്ഷേ പക്ഷേ ഇവരുടെ ഭാഗ്യമായിരിക്കാം അദ്ദേഹം നേരത്തെ മരിച്ചത് എന്തായാലും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ മനസ്സിൽ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി എന്നുള്ള ആ കവിതയെല്ലാം ചൊല്ലാത്ത ആരുമില്ല രമണൻ ചൊല്ലാത്ത കുട്ടികൾ അന്ന് കാളേജ് ജീവിതത്തിൽ ഇല്ലായിരുന്നു എല്ലാവരുടെയും ചുണ്ടുകളിൽ രമണൻ ഉണ്ടായിരിക്കും അങ്ങനെ ആ രമണനെ ആ കവിതയാണ് അദ്ദേഹത്തിന് എത്രയോ എഡിഷൻസ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോള് കുറേക്കാലം ഇരുന്നിട്ട് അദ്ദേഹം മുന്നേ നമ്മളെ വിട്ടുപോവുകയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിപ്ലവ ജീവിതം നമ്മളെ എല്ലാവരെയും പിടിച്ച് ഉലച്ചിട്ടുണ്ട് പക്ഷേ ഇന്നും ഈ കവിത എഴുതുന്നവരൊക്കെ അദ്ദേഹം ഒരു മാതൃക തന്നെയാണ് ഇന്നത്തെപ്പോലെ പെട്ടെന്ന് അക്ഷരങ്ങളുടെ ഒരു ഘോഷയാത്ര മാത്രമല്ല ഇന്നാണെങ്കില് മുറ്റത്ത് തുള്ളി മുറ്റത്ത് തുള്ളി എന്ന് രണ്ട് വാക്കെഴുതിയാൽ അത് കവിതയായി മാറും പക്ഷേ ചങ്ങമ്പുഴയുടെ കവിതകൾ അങ്ങനെയല്ല അപ്പോഴതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ചങ്ങമ്പുഴയെ വളരെ ഇഷ്ടപ്പെട്ടത്